ആ ഹലോ ആരാണ് ആ അതെ

ആ എന്താണ് അസുഖം

ആ എത്ര ദിവസം ആയി തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസം ആയി എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും കഴിച്ചോ ആ പിന്നെ രണ്ട് മൂന്ന് ദിവസം ആയെങ്കിൽ എന്താ ആശുപത്രിയിൽ ഒന്നും വരാത്തത് ആ ആ അപ്പോൾ ആ ആ ആ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണണം കേട്ടോ ഇനി അസുഖങ്ങൾ വരുമ്പോൾ ആ ഇപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ഞാൻ കുറയാനുള്ള മരുന്ന് ഒക്കെ തരാം അപ്പോൾ പാരസെറ്റമോൾ അല്ലേ കഴിച്ചത് ആ ആ അപ്പോൾ ഞാൻ വേറെ മരുന്ന് മാറ്റി എഴുതി തരാം ആ എന്നിട്ട് വീട്ടിൽ പിന്നെ തുളസി ഇലയും ഞവര ഇല ഒക്കെ ഇട്ട് ആവി ഒക്കെ പിടിക്കണം ആ ചുക്ക് കാപ്പി ഒക്കെ ഇട്ട് കുടിക്കണം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ കുറവ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി വരണം കേട്ടോ ആ ശരി

കുറവ് ഇല്ല എന്തൊക്കെ ഇട്ടാണ് ആവി പിടിച്ചത് എന്തൊക്കെ ഇട്ടാണ് ആവി പിടിച്ചത്

ആ ആ അപ്പോൾ അപ്പോൾ ഇനി തുളസി ഇലയും ഞവര ഇലയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ആവി പിടിച്ച് നോക്ക് കേട്ടോ ആ ആ ആ ശരി ആ